ഞങ്ങളുടെ സമുദായത്തില് കര്ഷകര്ക്കും കര്ഷക വൃത്തിക്കും ഞങ്ങള് സഹായിക്കാറുണ്ട് പിന്തുണ നല്കാറുണ്ട് എങ്ങനെയെന്നു വെച്ചാ കര്ഷകര് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഞങ്ങള് നേരിട്ട് പോയി വാങ്ങിക്കുകയും അവര്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും കൂടുതല് വില നല്കുകയും ചെയ്യാറുണ്ട് പിന്നെ കര്ഷകര്ക്ക് ആവശ്യമായ ജൈവ വളം പച്ചക്കറി വിത്തുകള് എന്നിവയെല്ലാം ഞങ്ങള് എത്തിച്ചു കൊടുക്കാറുണ്ട് അവര്ക്ക് വേണ്ട മാര്ഗ്ഗ നിര്ദേശങ്ങള് പറഞ്ഞു കൊടുക്കാനും അവരെ സഹായിക്കാനും ഞങ്ങളാലാവുന്നതെല്ലാം ചെയ്യുന്ന ഒരു ഒരു കൂട്ടരാണ് ഞങ്ങളുടെ സമുദായത്തിലുള്ളത് ഞങ്ങള് ക്രിഷ് കര്ഷകരെ അഭിമാനിക്കുന്ന അല്ലെങ്കില് ഞങ്ങളെ കര്ഷകരെ ഏറ്റവും നല്ല വ്യക്തികളായിട്ടാണ് കണക്കാക്കുന്നത് കാരണം കര്ഷകര് ഉണ്ടെങ്കിലെ ഞങ്ങളുള്ളൂ കാരണം ഞങ്ങള്ക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം അവരില് നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കര്ഷകരെ ആദരിക്കാനും അവര്ക്ക് വേണ്ട സഹായ സഹകരണങ്ങള് ചെയ്ത് കൊടുക്കാനും ഞങ്ങള് സഹായ എപ്പോഴും സന്നദ്ധരാണ്